ഇപ്പോൾ മലയാള ഭാഷയിൽ കൂടുതൽ മാറ്റങ്ങൾ മാത്രമേ വന്നിട്ടുള്ളു കാരണം ഇപ്പം മലയാളബാഷയെന്നു പറയുന്നത് പണ്ട് ആകെ എല്ലാ മലയാളികളും പറയുന്നത് ഒരേ ടൈപ്പ് മലയാളമായിരുന്നു പക്ഷേ ഇപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തുടങ്ങി അവസ കാസർഗോഡവസാനിക്കുന്ന ജില്ല ഓരോ ജില്ലയിലും ഓരോ ടൈപ്പ് മലയാളം ആയിരിക്കും അതിനു കാരണം ഇപ്പം മലയാളം കാസർഗോഡ്കാർ പറയുന്ന മലയാളം തിരുവനന്തപുരകാർക്ക് മനസ്സിലാകില്ല അതുപോലെ തന്നെയാണ് ഓരോ നാട്ടിലത്തെയും മലയാളത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ മലയാളിക്ക് മലയാളികൾ പറയുന്ന മലയാളം തന്നെ മനസ്സിലാകാത്ത അവസ്ഥയായിട്ടുണ്ട് അപ്പോൾ എന്താണെന്നു വെച്ചാൽ ഇപ്പോൾ ഒരു കണ്ണൂരുകാർ വന്നിട്ട് മലപ്പുറംകാരോട് വന്നിട്ട് വർത്താനം മലയാളത്തിൽ വർത്താനം പറയുമ്പോൾ ആ മലപ്പുറംകാർ പറയുന്ന രീതി ആകില്ല അവർ പറയുന്നത് അവരുടെ പല വാക്കുകളും മാറ്റിയിട്ടായിരിക്കും പറയുന്നത് ഇവർ പറയുന്ന വാക്കാകില്ല അവർ പറയുന്നത് അങ്ങനെ ഒരുമാതിരി എന്താ പറയുക അങ്ങനെ ആകെ മിക്സ്സായിട്ടാണ് ഉള്ളത് അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ മൽ കേരളത്തിലെ മലയാളികളൊഴികെ ഇപ്പോൾ പുറത്തു പോയിട്ട് ഇപ്പോൾ അന്യസംസ്ഥാനത്തു പോയിട്ടോ അല്ലെങ്കിൽ അന്യ രാജ്യത്തു പോയിട്ടുള്ള ഒരു മലയാളി ആ മലയാളി തിരിച്ചുവരുമ്പോൾ പറയുന്ന മലയാളവും വ്യത്യാസമാണ് കാരണം അവർ അവർ പറയുന്ന മലയാളം മലയാളമാകില്ല പകുതിയും ഇംഗ്ലീഷും പകുതി മലയാളം പിന്നെ പകുതി വേറെ ഏതെങ്കിലും അവർ പുതിയതായിട്ടു പഠിച്ച ഹിന്ദിയോ എല്ലാം മിക്സ്സായിട്ടാകും അവർ മലയാളം പറയുന്നുണ്ടാകുക അങ്ങനെ ഓരോ മലയാളികളും പറയുന്ന മലയാളം ഇപ്പം വളരേ വ്യത്യാസമായിട്ടാണ് വരുന്നത് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇനി കാസർഗോഡ് പറയുന്നത് മലയാളം ഭാഷ തന്നെ പറ്റി പറയുകയാണെന്നു വിചാരിക്കുക കാസർഗോഡിപ്പോൾ ഉണ്ടാകുന്നത് കർണാടക കർണാടക ആണല്ലൊ അവിടുത്തെ അടുത്ത സംസ്ഥാനം അപ്പം അവിടെ കർണാടകയിലുള്ള തെല്ങ്ക് ഭാഷയോ അല്ലെങ്കിൽ കന്നട ഭാഷയോ മിക്സ്സായിറ്റാണ് കർ കാസർകോട്ടുകാരുടെ മലയാളം വരുന്നത് അതുപോലെ തന്നെ ഇപ്പം തിരുവനന്തപുരം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തമിഴ് നാട്ടിലെ തമിഴ്നാട് അടുത്താണല്ലൊ തമിഴ്നാടും തമിഴ്നാട്ടിലത്തെ തമിഴും മലയാളവും കൂടി മിക്സ്സാക്കിയിട്ടുള്ള മലയാളമാണ് ഇവരിലേക്കുള്ളത് അവർക്ക് തിരുവനന്തപുരം കാർക്കുള്ളത് പക്ഷെ മലപ്പുറം കോഴിക്കോട് ഭാഗത്തുള്ള മലയാളമെന്നു പറയുന്നത് ഏകദേശം ഒരു പോലെയാണ് അവർ പറയുന്നത് അവർ പറ അവർ ഈ എന്നു പറയുകയാണെങ്കിൽ കണ്ണൂരുകാർക്ക് ഈയെന്നു പറയണത് ഞാൻ എന്നുള്ള അർത്ഥമാണ് അങ്ങനെ ഓരോരോ അർത്ഥങ്ങൾ അവർ പറയുന്ന വാക്കുകളൊക്കെ ഒരുപോലെയാണെന്നുണ്ടെങ്കിലും അർത്ഥങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പിന്നതു മാത്രമല്ല ഇപ്പോഴത്തെ കാലഘട്ടത്ത് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ചു വർഷം അഞ്ചു വർഷത്തെ ഒരു കണക്കെടുത്ത് നോക്കുവാണെന്നുണ്ടെങ്കില് മലയാളികൾ പുതിയ ന്യൂ ജനറേഷൻ മലയാളികൾ പുതിയ തലമുറ പുതിയ ടൈപ്പ് മലയാളങ്ങളും ഇറക്കിയിട്ടുണ്ട് പുതിയ പുതിയ വാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതേപോലെതന്നെ പുതിയ മലയാളം വാക്ക്ക കണ്ടു പഠിക്കുന്നതിനു പകരം അതിനുപരി എന്താ പറയുക പഴയ മലയാളഭാഷയ്ക്ക് പുതിയ മലയാളം അർത്ഥം കൊണ്ടു വന്നിട്ട് അങ്ങനെയും ഉപയോഗിക്കുന്നുണ്ട് കാരണം ഇപ്പോഴത്തെ പര്യായപദങ്ങളാണ് ഒരു മലയാള അർത്ഥത്തിനു തന്നെ പല അർത്ഥങ്ങളായിട്ട് അതും പലഭാഗത്ത് യൂസ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത് അതുമാത്രമല്ല ഇപ്പം മലയാളഭാഷയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഓരോരുത്തർ സംസാരിക്കുന്ന മലയാളം വേറെയാണെങ്കിലും അവർ കൂടുതലും ഇംഗ്ലീഷും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് മലയാളം പറയുന്നത് പിന്നെന്ത് മല പല പല സാധനങ്ങളുടെയും ഇംഗ്ലീഷ് അല്ലാതെ മലയാളത്തിൽ എന്താ അതിനെ വിളിയ്ക്കുകയെന്നു പോലും ഇപ്പോഴും പല മലയാളികൾക്കും അറിയില്ല അതിനൊരുദാഹരണമാണ് ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരിപ്പോഴും ഇപ്പം നമ്മൾ സാദാ പോലെ വർത്താനം പറയുമ്പം തന്നെ അവർ വായേല് എന്താ പറയുക ഇങ്ങനത്തെ ഇംഗ്ലീഷ് വാക്കുകളും വരുന്നുണ്ട് അപ്പം എന്താണെന്നു വെച്ചാൽ പലോർക്കും മലയാളം മര്യാദക്ക് അറിയില്ല പക്ഷേ എന്നാലും അവർ എന്താ പറയുക പല മലയാളികൾക്കും അവ് മറ്റുള്ള രാജ്യത്ത് മറ്റുള്ള മറ്റു രാജ്യത്തു നിന്നു വന്ന എന്താ പറയുക മറ്റു രാജ്യത്തു നിന്നു വന്ന മലയാളികളുടെ മലയാളവും മനസ്സിലാകില്ല പിന്നതു മാത്രമല്ല മറ്റ് അടുത്തുള്ള സ് ജില്ലയിലുള്ള മ് ഇത് ഇപ്പോൾ കാസർഗോഡുള്ളവർക്ക് കണ്ണൂരുകാരുടെയും കണ്ണൂർകാ കണ്ണൂരുള്ളവർക്ക് മലപ്പുറംകാരുടെയും മലപ്പുറംക്കാർ മലപ്പുറം ഉള്ളവർക്ക് തിരുവനന്തപുരം കാരുടെ ഒന്നും മലയാളം ഇപ്പോൾ മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്